സ്കൂളിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു നമ്മുടെ ഹിസ്റ്ററി അതായത് സാമൂഹ്യപാഠം അതായിരുന്നു കാരണം കുറെ പണ്ട് കാലത്ത് നടന്ന പല കാര്യങ്ങളും നമുക്ക് അതിലൂടെ അറിയാൻ പറ്റും അങ്ങനെ അത് നമുക്ക് ആവേശത്തോടെ നമുക്ക് പഠിക്കാൻ സാധിച്ചൊരു സബ്ജക്റ്റായിരുന്നു പിന്നെ സ്കൂളിൽ പോകുന്ന കാലത്ത് ഏറ്റവും പ്രയാസമുള്ളത് എല്ലാവരെയും പോലെ എനിക്കും കണക്ക് തന്നെയിരുന്നു മാത്സ് ഏറ്റവും പ്രയാസമുള്ള സബ്ജെക്റ്റ് നമുക്ക് മനസ്സിലാക്കി പഠിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീടത് മാറി പക്ഷെ അത് സ്കൂൾ കാലത്ത് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം മാത്സ് തന്നെയായിരുന്നു